എടാ നീ എവിടെയാടാ ഞാന് നിനക്കിപ്പം വോയിസ് ഇട്ടത് അയച്ചത് എൻ്റെ ഡി ജി ലോക്കറില് ഒരു പുതിയ സിം അപ്ഡേട്ട് ചെയ്യണം അപ്പം ഞാനതിന് ഇപ്പോൾ ഒരു കഫയില് ഇരിക്കുവാണ് ഞാനന്നേരം അപ്പഴാണ് ഓർത്തത് അത് അതൊന്ന് അപ്ഡേട്ട് ചെയ്യാനുള്ളതാണ് അപ്പം എൻ്റെ പഴയ സിമ്മത് നഷ്ടപ്പെട്ടു പോയി ഐഡിയെടെയിരുന്നു അപ്പം ഞാനത് പിന്നെ ഡ്യൂപ്ലിക്കറ്റെടുക്കാൻ വലിയ പാടായത് കൊണ്ട് ഞാനത് അതിൻ്റെ പുറകെ പോകാണ്ട് പുതിയൊരു സിമ്മെടുക്കുവായിരുന്നു അപ്പ ഇപ്പോൾ അത് ഡിജി ലോക്കറില് ഞാനൊരു ലോണിൻ്റെ ആവശ്യത്തിനായിട്ട് ഡിജി ലോക്കറെടുത്തപ്പോൾ നമ്പര് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് കാണിക്കുന്നുണ്ട് പഴയ സിമ്മിലേക്കാണ് ഓ റ്റി പി പോകുന്നത് അപ്പോൾ എനിക്ക് പുതിയതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനെനിനക്ക് അതിനെപ്പറ്റി എന്തേലും അറിയാവോ ഞാനത് വേറെ എൻ്റെ ഫ്രണ്ട് വഴിയാണന്ന് ചെയ്തത് അപ്പം നീ എന്നെ നീ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ നിനക്ക് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിലിപ്പം നിലവില് ആധാർകാർഡും പുതിയ സിമ്മുമുണ്ട് എന്നാൽ നമുക്കത് എങ്ങനെ ആണൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക പഴയ ഫോർഗോട്ട് അങ്ങനെ എന്തേലും കൊടുക്കാനുള്ള ഓരോപ്ഷൻ നിനക്കറിയാവോ നീയൊന്ന് കയറി നോക്കിയിട്ട് എന്നെയൊന്ന് സഹായിക്കാൻ പറ്റുമോ നിനക്ക്